പാലക്കാട് ജില്ലയില് നമക്ക് സാംസ്കാരിക ഉത്സവം എന്ന് പറയുമ്പോൾ സാംസ്കാരിക ഉത്സവം നമ്മുടെ ഗ്രാമം ശരിക്കൊരു ഗ്രാമത്തിൻ്റെ ഗ്രാമം വളർന്ന് ജില്ല ആയിയെന്നുതന്നെ നമുക്ക് പറയാൻ പറ്റും എവിടെ നോക്കിയാലും കൃഷിപ്പാടങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും നിറഞ്ഞ പാലക്കാടില് അമ്പലങ്ങള് അല്ലെങ്കില് അങ്ങനത്തെ ആരാധനാലയങ്ങള് നമുക്ക് ഒരുപാട് നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലമാണ് പാലക്കാട് അപ്പോൾ കേരളത്തിലെ നമ്പർ വൺ പൂരമായ നെന്മാറ വല്ലങ്കി വേല അത് ഫേമസ് ആണ് കേരളത്തിൽ തന്നെ ഫേമസ് ആണ് അതിൻ്റെ വെടിക്കെട്ട് ആനപ്പൂരം ശീവേലി അതിൻ്റെ ചമയ പ്രദർശനം അവിടുത്തേ എന്താ പറയുക ചെണ്ടമേളം അങ്ങനത്തെ എല്ലാം കൊണ്ടും നെമ്മാറ വല്ലങ്കി വേല ഫേമസ് ആണ് ഏത് നാട്ട്കാരിലാണിപ്പോൾ നമ്മൾ ആ വേലസമയത്ത് നമ്മൾ ആ പൂര പറമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ കേരളത്തിലെല്ലാ ജില്ലയിലും എല്ലാ ജില്ലയിൽ നിന്നും അവിടെ ആളുണ്ടാവും അത്രയും വലിയ ജനക്കൂട്ടം ആയിരിക്കും അവിടെ അവിടത്തെ അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ നമുക്ക് നോക്കുകയാണെന്ന് പറയുമ്പോൾ പാലക്കാട് ജില്ലയില് ചെനക്കത്തൂർ പൂരം ഇതേപോലെതന്നെ ചെനക്കത്തൂര് അവിടെ വേല കുതിര വേലയും കാള കളിയും കാര്യങ്ങളും അവിടെയും വെടിക്കെട്ടും കാര്യങ്ങളും അങ്ങനേ അവിടത്തെ പ്രസിദ്ധം പിന്നെ നമുക്ക് എന്താ പറയുക ജയിനമേട്ടില് അതായത് നമ്മുടെ പാലക്കട് ജില്ലയില് തന്നെ ടൗണിൻ്റ അടുത്ത് തന്നെയാണ് ജയിനമേട് എന്ന് പറയണ സ്ഥലം അവിടത്തെ ജയിന മഹോത്സവം അതും ഒരു വെറൈറ്റി ആയിട്ടുള്ള അതായത് അധികം ഒന്നും ആരും അറിയപ്പെടാത്ത കേരളത്തില് നമ്മളിപ്പോൾ എവിടെയാണ് അങ്ങനെ പെട്ടെന്നൊന്നും ജെയിനാമ്മാര് എവിടെയും ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ അതും അവരുടെ അവരുടെയൊരു വെറൈറ്റി ആയിട്ടുള്ള ഉത്സവങ്ങള് പിന്നെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഒട്ടനവധി അമ്പലങ്ങളും കാര്യങ്ങളും അവിടെ ഒക്കെ അത്യാവശ്യം ഈ ചുറ്റുമൊരു കൊങ്ങമ്മട പിന്നേ എന്താ പറയുക ഇവിടെ എൻ്റവിടെ നോക്കുകയാണെങ്കിൽ കണ്ടത്താറ് വേല വേലയുണ്ട് പിന്നെ മണപ്പുള്ളിക്കാവ് വേലയുണ്ട് അങ്ങനെ അങ്ങനെ ഇഷ്ടംപോലെ വേലയും ഉത്സവങ്ങളും നിറഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന സാംസ്കാരികമായിട്ട് ഒട്ടനവധി ഉത്സവങ്ങളും കാര്യങ്ങളും നടക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് പാലക്കാട്